കല എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രധാന കാര്യമാണ് ചിലപ്പോൾ ഒരാൾക്ക് ഒരു കലയോട് അല്ലെങ്കിൽ പാട്ടിനോട് താൽപര്യം പാടാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും അത് കേൾക്കുന്നത് നല്ല ഇഷ്ടമായിരിക്കും ഡാൻസ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും ഡാൻസ് കാണുന്നതും അത് ആസ്വദിക്കുന്നതും ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പലരും ഇത്തരം കലകളെ അവരുടെ ജോലിയായിട്ട് വരെ എടുക്കുന്നുണ്ട് അഭിനയം എന്നുപറയുന്നത് ആ ഒരു കല ബാക്കിയുള്ളവർക്ക് കാണാനും അതുപോലെ തന്നെ അവർക്കൊരു ജോലി എന്ന നിലയ്ക്കും കൊണ്ടുനടക്കുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അവരെ ആരാധിക്കുന്നതിനും പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അല്ലെങ്കിൽ അവരെ കാണാൻ വേണ്ടിയിട്ട് സമയം ചിലവാക്കുന്ന സാധാരണക്കാരായ ആൾക്കാരുണ്ട് കാരണം അവർക്ക് ചെയ്യാൻ കഴിയാത്തൊരു കല ബാക്കിയുള്ള ഒരാൾ ചെയ്യുന്നത് കണ്ട് അവർ ആസ്വദിക്കുന്നുണ്ട് എന്നാണ് അതിനർത്ഥം പിന്നെ പാട്ട് പാടുക ചിലർക്ക് പാട്ട് എന്നുള്ളത് പാടാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും ആ പാട്ട് ആസ്വദിക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും അങ്ങനെ പല ദു ഖത്തിലിരിക്കുന്ന സാഹചര്യത്തിൽ പോലും അങ്ങനെ പാട്ട് കേട്ടിട്ട് ചിലരുടെ ആ ഒരു സന്ദർഭം ദു ഖം എന്നതിൽ നിന്ന് സന്തോഷത്തിലേക്ക് വരാൻ കാരണം ആകുന്നുണ്ട് പിന്നെ ഡാൻസ് ആണ് എന്നുണ്ടെങ്കിൽ കല കുച്ചിപ്പുടി അതുപോലെ തന്നെ ഭരതനാട്യം അതൊക്കെയൊരു ശാസ്ത്രീയപരമായിട്ടുള്ള കലയാണ് അല്ലെങ്കിൽ ശാസ്ത്രീയ പരമായിട്ടുള്ള നൃത്തമാണ് അതിന് അതിന്റേതായിട്ടുള്ള വസ്ത്രധാരണങ്ങളും അതെപോലെ തന്നെ ചായങ്ങളും ഒക്കെ തേച്ചു പിടിപ്പിക്കേണ്ട ഒരു കലയാണ് അത്തരം കല അത്തരത്തിലുള്ള നൃത്തങ്ങളും അത്തരം നൃത്തം അഭ്യസിക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയിട്ട് പല തരത്തിലുള്ള കാ നൃത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്